കോഴി വളർത്ത് വളർത്തുന്നത് നമ്മൾ ഈ ഹാച്ചറിങ്ങ് യൂണിറ്റിൽ നിന്നും നാല്പത്തിരണ്ട് ദിവസം പ്രായമായ കോഴിയെ കോഴി കുഞ്ഞുങ്ങളെ ഏകദേശം നൂറ്റി മുപ്പത് രൂപ ഒരെണ്ണത്തിന് വില ആണ് അത് വാങ്ങി സ്റ്റാർട്ടറ് തുടക്കത്തിൽ സ്റ്റാർട്ടറ് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഗോതമ്പും അരിയും തേങ്ങാപ്പിണ്ണാക്കുമൊക്കെ തീറ്റയായിട്ട് കൊടുക്കും അതുകൂടാതെ നല്ല ഇനം കോഴിയുടെ മുട്ട വാങ്ങി കോഴിയെ അടവെച്ച് വിരിയിക്കും അത് ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളാവും അത് കഴിഞ്ഞാൽ അതിന് ആദ്യത്ത ഒരു മാസം സ്റ്റാർട്ടറ് മാത്രമാണ് തീറ്റയായിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വീട്ടിലെ ഗോതമ്പോ അരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും ഏകദേശം അഞ്ചര ആറു മാസം ആവുമ്പം അത് മുട്ട ഇടാൻ തുടങ്ങും നോർമലി നമ്മളിവിടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴിയെ വളർത്തുന്നത് അതുപോലെതന്നെ പൂവൻ കോഴിയെ നമ്മൾക്ക് മാംസത്തിനായിട്ട് ഉപയോഗിക്കാം വീട്ടിലെ സാധാരണ രീതിയിൽ കറി വയ്ക്കാം അത് ഫ്രൈ ആക്കാം അങ്ങനെ പല തരത്തിലുള്ള അൽഫാമായിട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവായിട്ടോ ഏതു രീതിയിൽ വേണമെങ്കിലും വെക്കാം അതുപോലെതന്നെ പ്രായമായിക്കഴിഞ്ഞാൽ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ മുട്ട ഇടുന്ന കോഴിയേയും നമ്മൾ മാംസത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെയാരെങ്കിലും ആവശ്യക്കാർ വന്നാൽ ഈ വലിയ കോഴിയിനെ മുട്ട ഇടുന്ന കോഴിയിനെ ഏകദേശം നാന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കാൻ സാധിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ